നമ്മളെ നാട്ടിൾ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഉള്ള മക്കളെല്ലാം വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് നല്ല രിതിയിൽ പഠിച്ച് ജോലി ജോലി നേടണം എന്ന ഒരൊറ്റ ആഗ്രഹത്തിലാണ് പണ്ടെത്തെക്കാലത്ത് അങ്ങനെയല്ല പണ്ടത്തെക്കാലത്ത് വിദ്യാഭ്യാസവും ഇപ്പോഴത്തെക്കാലത്തെ വിദ്യാഭ്യാസവും ഒത്തിരി വ്യത്യാസവുണ്ട് കാരണം പണ്ടു നമ്മളെ അദ്ധൃപകർ അടിച്ചു പഠിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മളെ അദ്ധൃപകർ അടിച്ചു പഠിപ്പിക്കില്ല കാരണം ഇപ്പം എല്ലാം പിള്ളേര്ക്ക് പറഞ്ഞാല് മനസ്സിലാവും കാരണം അന്നത്തെക്കാലത്ത് നമുക്ക് പഠിക്കുന്നത്തില് എന്താ പറയുക ഫോണ് റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ടി വി ഒരു ചില വിടുകളില് മാത്രം ഇപ്പം പഠിക്കാന് എല്ലാ സൗകര്യങ്ങളും കമ്പ്യൂട്ടറുകൾ എല്ലാ കുട്ടികളും പത്താം ക്ലാസ്സില് തന്നെ നല്ല മാര്ക്കോടുകുടി പാസ്സാവുന്ന കുട്ടികളാണ് പണ്ടത്തെക്കാലത്ത് നമ്മൾ എസ് എല് സി പാസ്സാകുന്ന അന്നുതന്നെ ഇരുന്നൂറ്റി അയിമ്പത് മാര്ക്ക് കഷ്ടി കിട്ടി പാസ്സാകുന്നവരാണ് ഉണ്ടാവുക ഇപ്പോൾ ഒക്കെ പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസും നേടി ഫുള് എ പ്ലസും നേടി പഠിച്ച് വിദ്യാത്ഥിനികൾ അത് കഴിഞ്ഞു പി ഡി സി

വിദ്യാത്ഥിനികള് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് വിദ്യാത്ഥിനികള്ക്ക് ഏറ്റവും കൂടുതല് പഠിക്കാന് ആഗ്രഹമുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെക്കാലത്തെ കുട്ടികള് എന്നാണ് ഞാന് പറയുന്നത്